ഇപ്പം ഞങ്ങൾ ക്ലാസ്സ് കഴിഞ്ഞ് പോകുകയാണെങ്കിലും ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഉച്ചയ്ക്ക് ലഞ്ചായിരിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വരെ ഇപ്പം ദൂരെ യാത്രയൊക്കെ ആണെങ്കിൽ ക്ലാസിലേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വിശന്നിട്ടൊക്കെ ആയിരിക്കും ആയിരിക്കും വരിക അപ്പം ഞങ്ങൾ ഓരോ ചേരുവകൾ ചേർത്ത് ചെറിയ ചെറിയ ഐറ്റംസ് ഇപ്പോൾ മാഗി ആണെങ്കിലും കായ പൊരിച്ചത് ആണെങ്കിലും അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്